എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഉപദേശിക്കുന്നത് തീരെ ഇഷ്ടമല്ല അവനറിയുന്നത് അവൻ തന്നെ പറയുകയാണെന്ന് ഞാൻ വിചാരിക്കുകയുള്ളൂ അല്ല സുപ്രഭാതങ്ങളിൽ ചില കാര്യങ്ങളിലൊക്കെ നല്ലതായിരിക്കും ഞാൻ കൂടുതൽ ഉപദേശങ്ങൾ കേൾക്കാറെന്നു വച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് കേൾക്കും ഫ്രണ്ട്സൊക്കെ ഉപദേശിക്കുന്ന കാരണം ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ കേൾക്കും നമ്മളെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടായിരിക്കുമല്ലോ അവർ ഉപദേശിക്കുന്നത് അതുപോലെ നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് അവർ ഉപദേശിക്കുന്നത് അതുപോലെ അച്ഛനും അമ്മയും ആയാലും ഉപദേശിക്കുന്നത് നന്നാവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെയാണ് എനിക്കെല്ലാത്തിനോടും താൽപര്യമുണ്ട് അതേപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ സുപ്രഭാത സുപ്രധാനത്തെപ്പറ്റി പറയുകയാണെങ്കിൽ തീരുമാനങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം ആരെയെങ്കിലും കയ്യിന്ന് എന്തെങ്കിലും ഞാനിപ്പോൾ ഒരു വണ്ടി എടുക്കാൻ തീരുമാനിച്ചിട്ട് എല്ലാവരോടും ചോദിക്കാണ്ടെടുക്കില്ല ഏതു വണ്ടി എടുക്കണം നമ്മളറിയാണ്ട് എടുത്തിട്ടൊന്നും കാര്യമില്ല അങ്ങനെ ഞാനെല്ലാവരോടും ചോദിച്ചിട്ട് അറിഞ്ഞിട്ടൊക്കെ എടുക്കാറുള്ളൂ വണ്ടിയായാലും എന്തായാലും അങ്ങനെ എടുക്കാറുള്ളൂ എനിക്കതിനോടാണ് താല്പര്യമുള്ളൂ ഞാനെല്ലാവരോടും ചോദിക്കും അങ്ങനെ ഉപദേശം പറയുന്നതെന്നായാലും ഞാൻ കേൾക്കുകയൊക്കെ ചെയ്യും എന്താ വെച്ചാൽ നമ്മളെ നല്ലതിനു വേണ്ടിയാണല്ലോ എല്ലാവരും പറയുന്നത് ഫ്രണ്ട്സായാലും എല്ലാവരും